ഇന്ത്യൻ തൊഴിൽ വിപണീനെ കുറിച്ച് പറയാനാണെങ്കിൽ തൊഴിൽ വിപണീന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് തൊഴിലില്ലാത്തോർക്കൊക്കെ അത് അത്പോലെ അതായത് പണി ഒന്നുമില്ലാത്തവർക്ക് നല്ല അവസരങ്ങളാണ് പല അതായത് അക്കൗണ്ടൻ്റായിട്ട് പിന്നെ സെയിൽസ് മാനയിട്ട് അങ്ങനെ പല അതായത് ഓരോ സ്ഥലത്തും ഓരോ ജോലിയായിരിക്കും ഓരോ വ്യത്യസ്തത തരമായിട്ടുള്ള ജോലിയായിരിക്കും ഇപ്പോൾ ഒരു അതായത് തുണിക്കടയൊക്കെ പറയുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു കൂടുതൽ പറയുവാണെങ്കിൽ ഒരു പത്ത് നൂറുപേർക്ക് എങ്ങനെ പോയാലും ജോലിയുണ്ടാവും ഒരു വലിയൊരു തുണിക്കടയാണ് അതുപോലെ മാള് സൂപ്പർ മാർക്കറ്റ് അങ്ങനുള്ള സ്ഥലത്തൊക്കെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുന്നതാണ് ഈ തൊഴിൽ വിപണി പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ബൾക്കായിട്ടൊക്കെ സാധനങ്ങൾ ഇറക്കുവാണെങ്കിൽ അതിനനുസരിച്ചിപ്പോൾ അത് അതായത് തീർന്ന് പോവണംന്നില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെയുണ്ടാവും പിന്നെ എക്സാമ്പിള് പറയുകയാണെങ്കിലിപ്പോൾ പച്ചക്കറികളൊക്കെ ഒരുപാട് ഇറക്കിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചീഞ്ഞു പോവാനുള്ള സാധ്യത സാധ്യതകളൊക്കെയുണ്ട് അപ്പം അതൊക്കെ വച്ചുനോക്കുമ്പോൾ പിന്നെ എന്താ പറയാ അവർക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക അങ്ങനെ ഒരുപാട് വെല്ലുവിളികളും ഉണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് അവസരങ്ങളും നൽകുന്നുണ്ട്